എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് സിനിമേനേ ടി വി ഷോനെ കുറിച്ചാണ് ഞാൻ പറയുക സിനിമയാണെങ്കിൽ ഞാൻ അത്യാവിശ്യം അതായത് ഫേമസ് ആയിട്ടുള്ള എല്ലാ സിനിമകളും അതായത് തിയേറ്ററിൽ ഒക്കെ ഒരുപാട് കളക്ഷനും കാര്യങ്ങളും കിട്ടിയ അതായത് അത്യാവിശ്യം നല്ല അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ള എല്ലാ സിനിമകളും ഞാൻ കാണാറുണ്ട് ഇപ്പോൾ അടുത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തത് ഇപ്പോൾ അടുത്തത്ത് പറഞ്ഞാൽ ഞാൻ മിനിഞ്ഞാന്ന് കണ്ട പടമാണ് ഞാൻ കണ്ണൂർ സ്ക്വാഡ് നല്ല അടിപൊളി പടമാണ് മമ്മൂക്ക ഒക്കെ തകർത്ത് അഭിനയിച്ച ഒരു പടമാണ് കണ്ണൂർ സ്ക്വാഡ് അത് ഞാൻ കണ്ടിട്ടുണ്ട് അത് അടിപൊളി പടമാണ് പിന്നെ അതിനു മുന്നേ കണ്ടത് ആർ ഡി എക്സ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ അത്യാവിശ്യം ഫേമസ് ആയിട്ടുള്ള അതായത് ഫേമസ് മൂവി അതായത് നല്ല കളക്ഷൻ കാര്യങ്ങളൊക്കെ നല്ല അഭിപ്രായങ്ങൾ ഒക്കെയുള്ള മൂവിസ് മൂവീസ് ഞാൻ കൂടുതലായിട്ട് കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ഞാൻ കാണാറുണ്ട് താനും എനിക്കിങ്ങനെ പ്രത്യേകിച്ച് സിനിമ നടൻമാരെയോ പിന്നെ കാര്യങ്ങൾ എനിക്ക് അതായത് അവരെ ഇഷ്ടം ഇവരെ ഇഷ്ടം അങ്ങനെയൊന്നുമില്ല അവരിപ്പോൾ നല്ലൊരു സിനിമയിൽ അഭിനയിച്ചാൽ അത്യാവശ്യം നല്ലൊരു ഫെയ്മസ് കളക്ഷൻ ആ സിനിമയ്ക്ക് കൂടുതൽ കളക്ഷനും അഭിപ്രായങ്ങളൊക്കെ കിട്ടുന്ന സിനിമയാണെങ്കിൽ ഞാൻ കൂടുതലായിട്ടും കാണാൻ ശ്രമിക്കും ഇപ്പോൾ ടി വി ഷോയാണ് ഞാൻ കൂടുതലും മഴവിൽ മനോരമയിലെ പരിപാടികളാണ് കൂടുതലായിട്ട് കാണാറ്